എനിക്ക് സന്ദർഷിക്കാൻ ഇഷ്ടമുള്ളത് കൂടുതലും കുന്നിന് ചരിവുകളുമൊക്കെയാണ് കാരണം എന്തെണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രക്കിങ്ങിന് ഏകദേശം ഏറെകുറെ ഇഷ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അട്ടപ്പാടിയും ജല്ലിപ്പാറയിലൊക്കെ കവളപ്പാറയിലൊക്കെ പോയപ്പോള് നല്ല ഉയരങ്ങളില് പോകാന് ഭയങ്കര ഇഷ്ടമാണ് കാര്യം എന്ന് വെച്ചാൽ ഉയരങ്ങളില് എത്തുമ്പോൾ കോടയും കാര്യങ്ങളും കാണും അ ഭയങ്കര രസമാണ് പിന്നെന്താണ് നല്ല ഉയരങ്ങളുള്ള സ്ഥലങ്ങളില് എത്തുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് കാണാന് പറ്റും നമ്മുടെ സ്ഥലങ്ങളൊക്കെ വിശാലമായി കിടക്കുന്നത് എന്നൊക്കെ കാണാന് പറ്റും ഓരോരോ വലിയ വലിയ ബില്ഡിംഗ് ഒക്കെ എത്ര ചെറുതായിട്ട് കാണാന് പറ്റും പോരാത്തതിന് നല്ല കാറ്റും തണുപ്പും പിന്നെ കിളികൾ പോകുന്നത് കാണാന് പറ്റും പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹിമാലയം പോലത്തെ നല്ല നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് ഞാനാദ്യം പോ ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതിനേക്കാള് തണുപ്പുള്ള സ്ഥലങ്ങൾ പോകാന് ഭയങ്കര ഇഷ്ടമാണ് അതും പോകാനാഗ്രഹമുള്ളത് ബൈക്കിലൊക്കെ പോകാനാണ് കാരണം എന്ന് വെച്ചാൽ ഏറെകുറേ എല്ലാം കാണാന് കഴിഞ്ഞ് സന്ദർഷിച്ച് പോകാന് കൂടുതല് താത്പര്യപ്പെടുന്ന ഒരാളാണ് ഞാന് അപ്പോൾ കൂടുതല് കണ്ടു പോകാന് പറ്റുന്നത് കാറിനേക്കാള് എന്ത് പറഞ്ഞാലും ബൈക്ക് ആണ് സുഖം പിന്നെ എല്ലാം ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും ഒരു കൂട്ട് ഉണ്ടായി പോകാന് ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല സ്ഥലങ്ങൾ കാണാനും ഏറെകുറേ ഇഷ്ടമാണ് പിന്നെ ഇഷ്ടപ്പെടാന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതല് ഇഷ്ടം ഇങ്ങനത്തെ പ്രകൃതിയായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അല്ലാതെ ടെക്നിക്കല് ആയിട്ടുള്ള കുറച്ചു സ്ഥലങ്ങള് ഉണ്ടല്ലോ അങ്ങനത്തെ ഇഷ്ടമല്ല ഇഷ്ടം അല്ലയെന്നല്ല അവയെക്കാള് കൂടുതല് ഇഷ്ടപ്പെടാന് ഇഷ്ടപ്പെടുന്നത് പ്രകൃതിയെ ഉള്പ്പെടുന്ന ഓരോ സ്ഥലങ്ങളാണ് അതായത് ഈ വന്യജീവി സങ്കേതം അങ്ങനത്തെ കുറച്ച് ബയാ ജീവികളായിട്ട് കുറേ കാണപ്പെടുന്ന സ്ഥലങ്ങളും പിന്നെ കുറേ പച്ചപ്പും വെള്ളച്ചാട്ടം അങ്ങനത്തെ സ്ഥലങ്ങളാണ് പിന്നെ ഇഷ്ടം ഇപ്പോൾ ഇഷ്ടം ഇനി പോകാന് താത്പര്യം ഉള്ളത് ഗുജറാത്ത് അവിടെയാണ് ഗുജറാത്ത് പോകാന് കാരണം എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അവിടെ ഗുജറാത്ത് മഹാരാഷ്ട്ര മദ്ധ്യപ്രദേശ് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് അതേപോലത്തെ അവിടുത്തെ കള്ച്ചർ കലാ വാസനകൾ ഭയങ്കര അപൂര്വ്വമാണ് അങ്ങനത്തെ കണ്ടിരുന്നു പഠിക്കാനുള്ളതും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഓരോരുത്തെ സ്റ്റ് സ്റ്റാളുകളിലും ഭക്ഷണ രീതിയും അവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ കള്ച്ചര് ആക്റ്റിവിറ്റീസും അവിടുത്തെ ഡാന്സ് അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങള് കാണാന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കര്ണാടകയില് പോയപ്പോൾ അവിടുത്തെ ഒരു വലിയ ആഘോഷമാണ് ദസറ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ മഹാരാഷ്ട്രയില് പോയപ്പോഴും അവിടെ ആ ഭാഗത്ത് കൂടുതലും ഹോളി ആഘോഷിക്കുന്ന ആള്ക്കാരാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ട് കാണാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്